അതേ ഹലോ ഇവിടെ ചാളയുണ്ട് പിന്നെ ഫിലോഫിയ ഉണ്ട് പിന്നെ കരിമീനുണ്ട് പിന്നെ ചൂര ഉണ്ട് കേരയുണ്ട് നിങ്ങൾക്കെന്താണ് വേണ്ടത് കരിമീൻ നാന്നൂറ് ചൂരയ്ക്കും നാന്നൂറ് എന്താ നിങ്ങൾക്കെന്താണ് വേണ്ടത് എവിടാണ് നിങ്ങടെ വീടെവിടാണ്

ആ ആ ഓക്കെ ഓക്കെ ഓക്കെ പേരെന്നാ പേരെന്നാ ആ ഓക്കെ ആ ഇവിടെ നല്ലതെ ഉള്ളൂ ചേച്ചി ഇവിടെ നല്ലതെ ഉള്ളൂ ഇവിടങ്ങനെ ചീത്ത ഉപയോഗിക്കാറില്ല എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് അതല്ല ഇവിടങ്ങനെ അങ്ങനെ പരാതി ഒന്നും കിട്ടാറില്ല നല്ല സാധനം മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളു നിങ്ങളുടെ പേര് പ നിങ്ങളുടെ നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ ആ ആ ആ അപ്പം വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി നിൽക്കണം

പൈസ ആ ആ കൊച്ചിൻ്റെയ് കൊടുത്ത് വിട്ടാൽ മതി അതിന്റെ കൊടുത്ത് വിട്ടാൽ മതി ആ നാന്നൂറ് രൂപ കറക്റ്റ് നാന്നൂറായിട്ട് തന്നെ തരാമെങ്കിൽ കുഴപ്പമില്ല ചില്ലറ അവിടെ കാണത്തില്ലായിരിക്കും ആ അപ്പം ആ എണ്ണൂറ് രൂപ ആ പിന്നെ വേറെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇറച്ചി വേൺ തൊന്നും വേണ്ടെ ഇവിടെ ഇറച്ചി ഉണ്ടായിരുന്നല്ലോ ഇറച്ചി ഒക്കെ ഉണ്ടായിരുന്നു

ബീഫിന് മുന്നൂറ്റി എൺപത് ആ ആ ഓക്കെ ഓക്കെ ആ ശരിയെന്നാൽ ആ ഓക്കെ ഓക്കെ